ഞങ്ങൾ സാധാരണയായി നൃത്തരൂപം അവതരിപ്പിക്കുന്നത് ഉത്സവസമയത്തോ അല്ലെങ്കിൽ കോളേജിലെ ഓരോ യുവജനോത്സവ പരിപാടികൾക്കോ ആണ് സാധാരണയായി നൃത്തരൂപത്തിലേർപ്പെടുന്നത് ഉത്സവസമയത്ത് നാട്ടിലെ കൂട്ടുകാരെല്ലാവരും കൂടി ഒത്തുകൂടി തിരുവാതിര കളിക്കുകയും കൈകൊട്ടിക്കളി കളിക്കുകയും ചെയ്യുന്നു ഇത് നാട്ടിലെ കൂട്ടുകാരെല്ലാവരും ഒത്ത്കൂടി ഒരുമിച്ച്നിന്ന് പ്രാക്ടീസ് ചെയ്താണ് ഈ തിരുവാതിരകളിയും കൈകൊട്ടികളിയും ഞങ്ങൾ സ്റ്റേജിലവതരിപ്പിക്കുന്നത് ഇതുപോലെത്തന്നെയാണ് കോളേജിലെ യുവജനോത്സവവും യുവജനോത്സവത്തിന് വരുന്നത് തിരുവാതിരയും മാർഗം കളിയും ഒപ്പനയും എന്നിവയാണ് ഇതും കൂട്ടുകാരെല്ലാവരും കൂടി ഒത്തുകൂടി ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്താണ് തിരുവാതിരയും ഒപ്പനയും മാർഗംകളിയും എല്ലാം കളിയ്ക്കുന്നത് കൂടാതെ ചിലകുട്ടികൾ ഒറ്റയ്ക്ക് മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും ഭാരതനാട്യവുമെല്ലാം എല്ലാ നൃത്തരൂപങ്ങളിലും ഏർപ്പെടുന്നു ഇതിലൂടെ നൃത്തരൂപങ്ങളുമായി ചെറുപ്പക്കാർക്ക് പല രീതിയിലും ഇവർ ഈ നൃത്തരൂപങ്ങളുവായിട്ട് ഏർപ്പെടുന്നുണ്ട്